ഹലോ ആ കോക്കനട്ട് ഓയിൽ മില്ലല്ലേ ആ ഞാൻ പുതിയ ഓയിലിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാനാണ് വിളിച്ചത് എന്തെങ്കിലൊക്ക പുതിയതായിട്ട് ആ എന്തെങ്കിലുണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഓ ഓ ഓ ശരി ശരി ഓ ഓ അപ്പം

ഓ ഓ ഓ ഞാൻ വിളിച്ച് പറഞ്ഞാൽ കൊണ്ട് തരാൻ പറ്റുമോ ആ എന്തായിരുന്നാലും ഇനി ഞാൻ ആദ്യം വന്നുപയോഗിച്ച് നോക്കാം വാങ്ങിച്ചുപയോഗിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിക്കനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ആ ആർക്കെങ്കിലും ഒക്കെ ഞാൻ റഫർ ചെയ്യാം അപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പേർക്ക് പേരാവുമ്പോഴത്തേക്ക് കൊണ്ടത്തരാനെളുപ്പമുണ്ടെങ്കിൽ എനിക്കും അതായിരുന്നു സൗകര്യം ആ ആ ആ ആ അപ്പോൾ എന്തായിരുന്നാലും പുതിയ ഇതിൻ്റ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ എന്തായിരുന്നാലും ആ അപ്പോൾ നോക്കാം വേറെ എന്തെങ്കിലും എണ്ണേടെ വേറെ ഏതെങ്കിലും ഇത് വന്നിട്ടുണ്ടോ പായ്ക്കറ്റിലല്ലാത്ത ഓ ആ ആ ആ ശരി എന്നാൽ അപ്പോൾ ഓക്കെ താങ്ക് യൂ ആ ആ